ആദ്യം തന്നെ നമ്മുടെ സർക്കാരിനെ വലിച്ച് പുറത്തെറിയണം കാരണം ഇവമ്മാരൊക്കെയുണ്ടല്ലോ കാണിക്കുന്ന അത് തോന്ന്യവാസമൊക്കെ പറഞ്ഞാൽ ഒരു മാതിരി വല്ലാത്ത പരിപാടിയാണ് കാരണം ഇപ്പഴത്തെ യുവാക്കളെല്ലാം ഇറങ്ങി പുറത്തോട്ട് പോകുവാണ് നാട്ടില് പുറം രാജ്യങ്ങളിലേക്ക് എന്ത്കൊണ്ടാ തൊഴിലില്ല കാരണം തൊഴിലും ഇല്ല ലേ സ്വാതന്ത്ര്യം ഇല്ല കാരണം ഇപ്പഴ് നമ്മുടെ സര്ക്കാറും ഫുൾ അഴിമതിയാണ് നമുക്കിവിടെയാണെങ്കിൽ ഒരു മര്യാദയ്ക്ക് ഉള്ള ജോലി ജോലി അവസരങ്ങളില്ല ആ ജോലി ഉണ്ടേൽ തന്നെ അതിന് കൊടുക്കുന്ന അവര് ചെയ്യുന്ന ജോലിക്കുള്ള അണിനനുസരിച്ചുള്ള സാലറി കൊടുക്കുന്നില്ല അങ്ങനെ പല പല പല പല രീതിയിലുള്ള അവരുടെ ഇതുണ്ടല്ലോ ഇത് ഓരോന്നാണ് ഈ യുവാക്കള് ഈ പുറത്തോട്ട് പോകാനുള്ള മെയിൻ കാരണം യുവാക്കൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല ആന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം എല്ലാ അത്കൊണ്ട് തന്നെയാണ് ഈ പന്ത്രണ്ട് കഴിയുമ്പഴും അല്ലേൽ ഡിഗ്രി കഴിയുമ്പഴ് നമ്മുടെ യുവാക്കളെല്ലാരും കൂടെ വിസ എടുത്ത് ജോലി മേടി ജോലി മേടിക്കാനും അല്ലേൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാനും പുറത്തോട്ട് പോകുന്നത് പുറത്തോട്ട് പോകുന്നത് പോ മാത്രം കാണാം പക്ഷേ തിരിച്ച് വരവ് ഇപ്പോൾ പലരും കുറവാണ് കാരണം ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത ശൈലിയും അവിടുത്തെ ശമ്പളവും അവിടുത്തെ കാര്യങ്ങളുമെല്ലാം കിട്ടി കഴിയുമ്പോൾ അവിടുന്ന് പിന്നെ പോരാൻ തോന്നില്ല കാരണം അതുപോലെ അത്രയും സുഖ സൗകര്യങ്ങളിലാണ് അവിടെ അവര് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ വേണമെന്ന് വെച്ചാൽ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളു കാരണം പക്ഷേ നമ്മുടെ സർക്കാറ് നമ്മുടെ മന്ത്രിമാര് ആരും ഇതിന് വേണ്ടി ഒര് രീതിയിലും ഉള്ള നടപടികൾ എടുക്കുന്നും ഇല്ലെന്ന് മാത്രം അല്ല നമ്മുടെ നമ്മളടയ്ക്കുന്ന റ്റാക്സ് ടാക്സിൽ നിന്ന് അവരത് നൈസായിട്ട് ഊറ്റുന്നും ഉണ്ട് പറ ഇതെല്ലാർക്കും എല്ലാർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇതിന് തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ അവരതിനനുസരിച്ച് മൂടുകയും കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും പക്ഷേ ഇവരെ ആരേയും എതിർക്കാൻ അവര്ക്ക് സാധിക്കുന്നില്ല കാരണം എന്നാ ഈ മന്ത്രിമാരും സര് ഏമാന്മാരെല്ലാവരും നമ്മുടെ നാടിനെ ഭരിക്കുന്നതും നമ്മുടെ ഈവൻ നമ്മുടെ പോലീസില് നേരെ നേരെ ഒരു പോലീസുകാരെ നിയന്ത്രിക്കുന്നതും കാരണം ഇവരില്ല എങ്കിൽ ഒന്നുമില്ലാന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ നമ്മുടെ നാട് പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിലുള്ള കോളേജുകൾക്ക് നമ്മള് കോളേജിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ജോലി ജോലി ലഭിക്കും ഇവർ പറയുമ്പോൾ തന്നെ കമ്പിനികൾ കെട്ടി പൊക്കുകയും ഇവർ പറയുമ്പോൾ തന്നെ അടക്കുകയും ചെയ്യുമ്പോൾ നൂറ് നൂറും ആയിരവും കണക്കിന് ആൾക്കാർക്കാണ് ജോലി നഷ്ടപ്പെടുന്നത് അത് ഇതല്ലേ സ്ഥിരമായൊര് വരുമാനത്തിനും സ്ഥിരമായൊരു വരുമാനത്തിനും ഒരു ജീവിതശൈ നല്ലൊരു ജീവിതം നയിക്കാനുമൊക്കെ എല്ലാവരും ഈ യുവാക്കളെല്ലാരും തന്നെ ഈ പുറത്തോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഈ സർക്കാർ ജോലികൾക്ക് തന്നെ എയില് മൂന്ന് മാസോം നാല് മാസോം വരെ ശമ്പളങ്ങൾ ഇപ്പഴും പെൻഡിംഗായി കിടപ്പുണ്ട് എന്ത്കൊണ്ടാ ആ ഇല്ല കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടോ അല്ലാതെ ഇല്ല കഴിയാഞ്ഞിട്ടോ അല്ല പിടിച്ച് വെച്ചിരിക്കുകയും അതിനനുസരിച്ച് കാശ് കഴിയുമ്പഴേക്കും പോകുകയും ചെയ്യും ഇല്ല തികയാതെ വരികയും ചെയ്യുന്ന അഴിമതി കാണിക്കുന്നുണ്ട് അതൊര് മയത്തിലൊക്കെ കാണിച്ചുകൂടെ ഈ ബാക്കിയുള്ളോരെ ഒന്നും ഇല്ല ഉള്ളവർക്കും ജീവിക്കണ്ടേ അവരെയും ബുദ്ധിമുട്ടിച്ചാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ നാട്ടിലുള്ള നാടിൻ്റെ ഭരണഘടനയെ തന്നെ ആദ്യമേ മാറ്റി എഴുതണം കാരണം അത്രയും മ്ലേച്ഛമായ രീതിയിൽ ആണ് ഓരോ നിയമങ്ങളുണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ വണ്ടി മോഡിഫൈ ചെയ്താൽ ആ അടുത്ത കേസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കേസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താലും കേസാണ് പുറം രാജ്യങ്ങളിൽ ആവശ്യത്തിന് വേണ്ടിയുള്ള നിയമങ്ങള് മാത്രമേ എല്ലായിടത്തും തന്നെയുള്ളൂ ഈ കൂട്തലായിട്ടൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലുള്ള അത്ര അനാവശ്യമായ നിയമങ്ങൾ കാര്യങ്ങളും കാരണം തന്നെയാണ് യുവാക്കൾ മെയ്നായിട്ടും ജോലി കിട്ടാതാകുകയും പുറത്ത് പോകേണ്ടി വരികയും ചെയ്യുന്നത്